എനിക്ക് ഈയിടെ ഒരു ജോലി കിട്ടി അതിന് എനിക്കൊരു പാ പുറത്തു പോകുവാൻ വേണ്ടിയിട്ട് ഒരു പാസ്സ്പോർട്ട് ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിലെ അങ്ങോട്ട് ഒരിത് ചോദിക്കുകയാണ് എനിക്ക് ഈ പാസ്സ്പോർട്ടെടുക്കുന്നതിനായിട്ട് എന്തൊക്കെ ആണ് ആവശ്യങ്ങളെന്നും എന്തൊക്കെ ഡോക്യൂമെൻസാണ് വേണ്ടത് അത് എനിക്കൊന്നു പറഞ്ഞു തരണം അതു പോലെ തന്നെ നല്ലൊരു കമ്പനിയിലൊരു ഹയർ ട്ടാണ് കിട്ടിയിരിക്കുന്നത് ജോലിയ്ക്ക് അതിനു വേണ്ടിയിട്ട് ഈ ഇപ്പം എനിക്കറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നൊന്നും അറിയത്തില്ല പാസ്സ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും അത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളവിടെ കൊണ്ടുവരണമെന്നും അത് എൻ്റെ പേര് എസ് എസ് എൽ സി ബുക്കേ മഞ്ചു മഞ്ചു എന്നാണ് അത് അതിനിച്ചിരി സ്പെല്ലിങ് തെ മാറ്റുണ്ട് അതിനകത്ത് മാറ്റം സ്പെല്ലിങ് മാറ്റം വന്നിരിക്കുന്നതു കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നാക്കാനുള്ള കാര്യങ്ങളും കൂടി ഒന്നു പറയണം വൺ ആസ്സേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതും ചോദിച്ചിരിക്കുന്നത് അതിന് അതിന് എന്തൊക്കെ സാധനകളാണ് ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് അതുംകൂടെയെന്നു പറഞ്ഞു മനസ്സിലാക്കണം സർട്ടിഫിക്കറ്റിൻ്റെ പാസ്സ്പോർട്ടിനു വേണ്ടി അപേക്ഷിക്കുന്നതിന് എല്ലാ രേഖകളും എന്തൊക്കെ ആണ് എന്തൊക്കെ ഡോക്യുമെൻസാണ് അതുമെല്ലാം ഒന്ന് പറഞ്ഞു തരണം